ഓരോ കാലങ്ങൾ മാറും തോറും കൃഷിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് കൃഷി രീതികളെല്ലാം മാറിയിരിക്കുന്നു അതുപോലെ ഇപ്പോൾ നമ്മൾ പണ്ടു കാലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ എന്നു പറഞ്ഞാൽ അത് എല്ലാം മനുഷ്യരായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ എല്ലാം മെഷീനാണ് ചെയ്യുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മൾ നടുക അതുപോലെതന്നെ കൊയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ആളുകളായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തെല്ലാം അത് മെഷ്യൻസ് ആയി മാറുകയാണ് അങ്ങനെ കൃഷി രീതിയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പിന്നെ പണ്ടത്തെ കൃഷി എന്നു പറയുമ്പോൾ അവിടെ ചെയ്യാൻ അല്ലെങ്കിൽ കൃഷി തൊഴിൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ അവിടെത്തന്നെ ആൾക്കാർ ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് സന്തോഷത്തോടെയും എല്ലാവരും ഒരു നാട്ടിലെ വർത്തമാനം എല്ലാം സംസാരിച്ചിട്ട് ആയിരുന്നു പണി ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ആളെ കിട്ടാതെ ആയിരിക്കുകയാണ് കൃഷിപ്പണിക്ക് ഇറങ്ങാൻ താൽപ്പര്യമില്ലാതായി അങ്ങനെ കൃഷിയിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ ബംഗാളിൽ നിന്നാണ് ആളുകളെ ബംഗാളികളെ ആണ് നമ്മളിപ്പോൾ കൃഷിയിലോട്ട് നമ്മൾ കൃഷി ചെയ്യാനായി അവരാണ് മുന്നിൽതന്നെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൃഷിയോടുള്ള മനോഭാവം തന്നെ മാറിയിരിക്കയാണ് അങ്ങനെ മാറി പിന്നെ പിന്നീടുള്ളത് പണ്ടുകാലത്ത് ഒക്കെ നമുക്ക് അത്യാവിശ്യം നല്ല രീതിയിലുള്ള ജൈവവളങ്ങൾ ആയിരുന്നു ഉപയോഗിച്ചത് പക്ഷേ ഇന്നത്തെ കാലത്ത് രാസ കീടനാശിനികൾ ഉപയോഗിച്ച് മറ്റും മണ്ണിൻ്റെ ഘടനയെ തന്നെ ഒരുപാട് അത് മാറ്റിയിരിക്കയാണ് കൃഷിയിലോട്ടുള്ള ആളുകളുടെ സമീപനം ഓരോ വർഷം കഴിയുംതോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കൃഷിരീതികൾ ആർക്കും ഒരു കൃഷി എന്നു പറയണത് ആർക്കും താൽപര്യമില്ലാത്ത കാര്യമായി മാറുകയാണ്